ഹലോ ഹലോ ആ ഓക്കെ പറഞ്ഞോളൂ സാർ ആ ഓക്കെ ആ ഓക്കെ

ആ ഓക്കെ സാർ മനസിലായി എത്രാം സ്റ്റാൻഡേർഡ് ആണ് സർ എട്ടാം ക്ലാസ്സല്ലേ ഓക്കേ ഒരാളേ ഉള്ളോ ഓക്കെ നമുക്കിപ്പോ ഫീസും കാര്യങ്ങളുമൊക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു തേർട്ടി മുപ്പതിനായിരം രൂപയാണ് തേർട്ടി തൗസൻറ് റുപ്പീസാണിപ്പോ ഫീസ് വരുന്നത് പിന്നെ നമുക്ക് പി ടി എ ഫണ്ടും കാര്യങ്ങളുമൊക്കെ അതിനകത്തു വരും പിന്നെ യൂണിഫോമിനു നിങ്ങൾ അഡീഷണൽ പേ ചെയ്യണം ബുക്കുകളും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അഡീഷണൽ പേ ചെയ്യണം പിന്നെ ബസ് സ്കൂൾ ബസ് കാര്യങ്ങളെന്തേലും ഉണ്ടെങ്കിൽ അതിനു നിങ്ങൾ അഡീഷണൽ പേ ചെയ്യണം ആ

സ്കൂൾ ബസ് ഉണ്ട് സാർ ആ സ്കൂൾ ബസിനിപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു കുട്ടിക്ക് പെർ മന്തിലാണെങ്കിൽ ത്രീ തൗസൻറ് റുപീസാണ് ചാർജ് ചെയ്യുന്നത് ആ ഓക്കേ നിങ്ങൾ ഏഹ് എങ്ങനെ സർ അത് മൊത്തത്തിൽ നമുക്ക് തേർട്ടി തൗസൻറ് മുപ്പതിനായിരം രൂപയാണ് വരിക അത് സ്കൂളിലെ ഓരോ കാര്യങ്ങൾ ആ പി ടി എ ഫണ്ടും ബാക്കി സ്കൂളിൻ്റെ ഫീസും കാര്യങ്ങളും ടോട്ടല് എങ്ങനെ ഇപ്പം സ്കൂളീന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്ററും അവിടേം ഏകദേശം ഒരേ ടൈമിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുക അതായത് പഠിപ്പിച്ചു വന്നോണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അതിനനുസരിച്ചു കുട്ടി എവിടെവരെ എത്തിയോ അതിൽ നമ്മൾ വേണമെങ്കിൽ ബാക്കി അവർ എത്തിയിട്ടില്ലെങ്കിൽ നമ്മളൊപ്പം എത്തിയില്ലെങ്കിലോ നമ്മളേക്കാളിൽ മുൻപ് പോവുകയാണെങ്കിലോ നമുക്ക് ഹലോ ആ പറഞ്ഞോളൂ സാർ ആ ഓക്കെ സാർ ഇപ്പോൾ കുട്ടി മുമ്പിൽ പഠിച്ചു മുമ്പിലെത്തിയെങ്കിലും നമ്മടൊപ്പം എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ കുട്ടിക്ക് വേണ്ടരീതിയിൽ ക്ലാസ്സെടുത്തു കൊടുക്കുന്നതായിരിക്കും ഓക്കെ എന്നാൽ സാർ നാളെ വന്നാൽ മതി നമുക്ക് ടീ സീം ഫീസും മാത്രമാണ് നമ്മളിവിടിപ്പോൾ ഇതാക്കുന്നുള്ളൂ ടീ സി മാത്രം കൊണ്ടുവന്നാൽ മതി കുട്ടിയേം കൊണ്ടുവരിക കുട്ടീടെ ടീ സീം കൊണ്ടുവരിക ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും വേറൊന്നും വേണ്ട പിന്നെ കുട്ടീടെ രണ്ടു ഫോട്ടോയും കാര്യങ്ങളും എത്തിച്ചോളൂ നമുക്കിവിടുത്തെ അഡ്മിഷൻ ഫോമ് ഫിൽ ചെയ്യുമ്പോൾ ആവശ്യം വരും അഡ്വാൻസ് എന്നു പറയുമ്പോൾ സാർ ഫസ്റ്റ് ഒരു ഫിഫ്റ്റീൻ തൗസൻറ് ഒക്കെ പേ ചെയ്താൽ മതിയാകും ഓക്കെ ആ ഓക്കെ സാർ